എന്റെ ഏറ്റവും പ്രീയപ്പെട്ട കളിക്കാരൻ സച്ചിന് ടെൻഡുല്ക്കറാണ് അല്ലെ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ക്രിക്കറ്റ് കളിക്കുന്നത് ആ കളി കണ്ടിരിക്കാൻ തന്നെ എന്ത് രസമാണ് ഇന്ത്യയുടെ യശ്ശസ് വാനോളം ഉയർത്തിയ ഒരു ക്രിക്കറ്റ് കളിക്കാരനാണ് മാത്രമല്ല എനിക്ക് തോന്നണു ഇത്രയും അധികം ക്രിക്കറ്റ് പ്രേമികളെ ഇവിടെ ഇന്ത്യയിലുണ്ടാക്കാനുള്ള ഒരു കാരണം അദ്ദേഹമായിരിക്കാം അദ്ദേഹത്തിന്റെ വ്യക്തിഗത ജീവിതമാണെങ്കിലും ആളുടെ ഒരു സ്വഭാവ സവിശേഷത ആണെങ്കിലും ഒക്കെ പ്രിയപ്പെട്ടതാണ് അത്ര ഉയരങ്ങളില് നിൽക്കുമ്പോഴും എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ആളുകളോട് ഇടപഴകുന്നത് എത്ര വിനയാനിതനായിട്ടാണ് ആളുകളോട് ഇടപഴകുന്നത് അപ്പോൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് കാണാൻ അവസരം ലഭിക്കുകയാണെങ്കില് അടുത്ത് നിന്ന് ചേര്ന്ന് നില്ക്കാനുള്ള നിന്നോട്ടെ എന്നായിരിക്കും ചോദിക്കുക